നമ്മൾ മനുഷ്യർ എപ്പോഴും നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും കുടുംബങ്ങളുമായി ഒരുമിച്ച് നിൽക്കാനുമാണ് നമ്മൾ ആഗ്രഹിക്കാറ് എപ്പോഴും നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടു കൊണ്ടിരിക്കുന്നത് എല്ലാരും വ്യത്യസ്തരായി അകന്നു പോകുന്നൊരു ശൈലിയാണ് പക്ഷേ നമുക്കത് ആ ഒരു ഒത്തുകൂടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വേരുകളിലേയ്ക്ക് എത്തിപ്പെടുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഫാമിലി നമ്മുടെ ചുറ്റുപാട് നമ്മൾ വളർന്നു വന്ന അന്തരീക്ഷം ഇതൊക്കെന്നു പറയുമ്പം നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലിങ്ങ് തന്നെയാണ് അപ്പം അവിടെ എത്തുമ്പോഴാണ് നമ്മൾ നമ്മളെന്താണെന്നും നമ്മൾ മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ മിസ്സ് ചെയ്തു ഇത്രയും കാലം നമ്മൾ എന്തൊക്കെ മിസ്സ് ചെയ്തു എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവാൻ പോവുന്നത് ആ ആ ഒരു വേരുകളിലേയ്ക്ക് എത്തുമ്പോഴ് മാത്രമാണ് അത് എല്ലാവർക്കും അനുഭവിക്കുന്നവർ അനുഭവിച്ചവർക്കേ അതറിയുള്ളു അതെന്താണ് നമ്മുടെ തിരിച്ചുപോവലിനു നമ്മൾ ആഗ്രഹിക്കുന്ന വേരുകൾ എന്താണെന്നും നമ്മൾ ആ ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ആ ഒത്തുകൂടുന്ന ടൈമുകളിലാണ് നമുക്കിത്രയും മിസ്സ് ചെയ്തിരുന്നു നമുക്കിത്രയും നല്ല അനുഭവങ്ങൾ കിട്ടിയിരുന്നില്ല നമ്മുടെ വേരുകൾ അടർന്നു പോയതുകൊണ്ടാണെന്നുള്ളത് ഒരു തിരിച്ചറിവ് വരിക നമ്മൾ വേരുകളിലേയ്ക്ക് കൂടിച്ചേരുമ്പോഴാണ്